ആദ്യകാലത്തൊക്കെ കുട്ടികൾ ഗ്രൗണ്ടിലൊക്കെയാണു പോയി കളിച്ചിരുന്നത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ ചുരുക്കം കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നുള്ളു കാരണം ഇപ്പോൾ ഈ മൊബൈലിറങ്ങിയേൻ്റെ ശേഷം മൊബൈൽ ഫോണിലെ ഗെയിം വന്നതോടെ ഇപ്പോൾ കുട്ടികൾ ഒറ്റക്കും കൂട്ടമായിട്ടൊക്കെ മൊബൈൽ ഫോണിലെ ഗെയിമല്ലേ കളിക്കണത് അതാണ് ഇപ്പം അവരുടെ ലോകം തന്നെ പിന്നെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉമ്മ അകത്തേക്ക് വിളിച്ചാൽ അകത്തേക്കു കേറാൻ തന്നെ മടിയായിന് കാരണം കൂടുതൽ സമയം പിന്നെ പുറത്തു കളിക്കാനായിരുന്നിഷ്ടം ഇന്നത്തെക്കാലത്ത് നേരെ തിരിച്ചാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് മൊബൈൽ ഫോണിൽ കളിക്കാനാണ് അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പിന്നെ എപ്പോഴും വീടിൻ്റെ ഉള്ളിലായിരിക്കും അവർ പണ്ടത്തെ കാലത്ത് ഉമ്മമാർ മക്കളെ തിരഞ്ഞ് ഓരോ വീട്ടിലും അയൽ വീട്ടിലൊക്കെ വന്നു മക്കളെ തിരയുമായിരുന്നു ഇന്നത്തെ കാലത്തങ്ങനല്ലല്ലോ ഇപ്പം വീടിൻറ്റുള്ളിലിരുന്നിട്ടല്ലേ കുട്ടികളെ കളി അന്നൊക്കെ ഓരോ വീട്ടിലെ കുട്ടികളൊത്ത് പാടത്തും പറമ്പിലും അങ്ങനെയൊക്കെയായിരുന്നു കളിച്ചിരുന്നത് ഇന്നത്തെ കാലത്ത് നേരെ തിരിച്ചാണ് വീടിൻ്റെ ഉള്ളിലാണ് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ കളി